ഒരു കായിക താരത്തിൻ്റെ മാനസികാരോഗ്യം അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു തൻ്റെ കായികവുമായി ആഴത്തിൽ ബന്ധമുള്ള ഒരു കായിക താരത്തിന് അവരുടെ മാനസിക നില പ്രശ്നം വരാൻ ചാൻസുണ്ട് കാരണം അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അവർക്കത് ഉൾകൊള്ളാൻ പറ്റണമെന്നില്ല കാരണം അതവറുടെ സ്വപ്നത്തെ ബാധിക്കാൻ ചാൻസുണ്ട് അവരുടെ പ്രതീക്ഷയെ ബാധിക്കാൻ ചാൻസുണ്ട് അങ്ങനെ അവർ ഡിപ്രഷനിലോ സ്ട്രസ്സിലോ ഒക്കെ വന്ന് ചേരാറുമുണ്ട് കേരളത്തിലെ കായിക മേഖലകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ അവബോധം കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് കഠിനമായ പ്രാക്ടീസ് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് അതുകൊണ്ട് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് എന്നിങ്ങനെയുള്ള അവബോധം സ്പോർട്സിൽ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് കേരളത്തിൽ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാരോഗ്യം നല്ല നിലയിൽ പോകുന്നതുമുണ്ട് ഒരു കായിക താരം ചിലപ്പോൾ തോൽവി പോലും ഏറ്റെടുക്കാൻ തയ്യാറായെന്ന് വരില്ല കാരണം അവർ അത്രയ്ക്ക് ആ സ്പോർട്സിനോട് നീതി പുലർത്തിക്കാണും തോൽവിയും ജയവും സ്പോർട്സിൻ്റെ ഭാഗമാണെന്ന് പറയുമെങ്കിലും അത് വേദനപ്പെടുത്തുന്ന ഒന്നാണ് അത് കാരണം വിഷാദ രോഗങ്ങൾ വരാൻ ചാൻസുണ്ട് പിന്നെ ഒരു കായിക താരം ആകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ബുള്ളിയിങ്ങ് ടോക്സിസിറ്റി ഇതൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട് അവർ പറയുന്നത് എല്ലാം കേട്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും വരാറുണ്ട് പിന്നെ ഈ സ്പോർട്സ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പെട്ടെന്നൊന്നും ഇതിന് പിടിച്ച് ഉലയ്ക്കാൻ സാധിക്കില്ല ഇതിൻ്റെ നല്ലതും നല്ലതല്ലാത്ത കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കും ഒരു സ്പോർട്സിലേക്ക് എല്ലാവരും എത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസികാരോഗ്യം പ്രശ്നം വരണമെന്നില്ല അവരുടെ ശരീര ബലം കൂട്ടാൻ സ്പോർട്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്